ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ കൂടുതലും ആൾക്കാർ കായികപരമായിട്ടുള്ള ഇതിനെ വല്ലാണ്ട് സ്വാധീനിക്കപ്പെടുന്നവരാണ് അവർ കൂടുതലായിട്ടും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ അവരുടെ സ്ഥലങ്ങളിലായ ഈ വയലുകൾ പോലുള്ള സ്ഥലങ്ങളിൽ ഫുട്ബോൾ മത്സരങ്ങൾ ഒക്കെ നടത്തുക പിന്നെ ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ സ്ഥാപിക്കുക അങ്ങനെയിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും തന്നെ ടറഫ് പോലുള്ള സെറ്റപ്പുകൾ ഒക്കെ കൂടുതലായിട്ടും കണ്ടു വരുന്നുണ്ട് അവർക്ക് ഗെയിമിങ്ങിനു വേണ്ടിയിട്ട് അവരു തന്നെ ക്രിയേറ്റ് ചെയ്യുന്നൊരു കാര്യങ്ങളാണത് അപ്പോൾ അവർക്ക് ജീവിതത്തിൽ കായികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ നേടാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഇതുപോലത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് പിന്നെ കൂടുതൽ ആൾക്കാരും എന്താ പറയുക വയലുകൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കളിക്കുന്നത് ഇപ്പോഴും പഴയ കാലങ്ങളിലൊക്കെ അങ്ങനെയാണ് കളിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ അവരും ഇപ്പം കുറേ ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ കളിച്ചു വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ കായികപരമായിട്ട് ഒരുപാട് ആൾക്കാർ പുറത്തേയ്ക്ക് എന്താ പറയുക ഇങ്ങനെ ഇതിൽ നിന്ന് തന്നെ മുന്നോട്ട് വരുന്നുണ്ട് ഗ്രാമങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഈ ഗെയിമുകളിലൂടെയും അതുപോലത്തെ സംഭവങ്ങളിലൂടെയും ഒക്കെ ഇപ്പോൾ പുറത്തേയ്ക്ക് വരാൻ തുടങ്ങി ഗ്രാമങ്ങളിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ക്രിക്കറ്റ് ഫുട്ബോൾ കബഡി വോളിബോൾ അങ്ങനത്തെ കളികളൊക്കെ ആണ് കൂടുതലിപ്പോൾ കണ്ടുവരുന്നത് ഇതുപോലത്തെ കളികളാണ് കൂടുതലായും ഗ്രാമങ്ങളിൽ ഉള്ളവർ ഇപ്പോൾ കളിക്കാറുള്ളത്